ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ ഭാഷയുടെ കാര്യം ഭാഷയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും കാലാവസ്ഥയിലും എല്ലാം വളരെ വ്യത്യസ്തമായ രണ്ടു രീതികളാണ് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ളത് ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ സംസ്കാരമാണ് നിലനിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലാകട്ടെ ആര്യ സംസ്കാരമാണ് നിലവിലുള്ളത് ഭക്ഷണം ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഉള്ള ഭാഷ എന്നു പറയുന്നത് പ്രധാനമായും തമിഴ് മലയാളം കന്നഡ അങ്ങനുള്ള ഭാഷകൾ കൂടിക്കലർന്നൊരു ഭാഷയാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതലുള്ളത് കൂടുതലായി കണ്ടു വരുന്നത് ഉത്തരേന്ത്യയിലാണെങ്കിൽ അത് ഹിന്ദി അതും ഹിന്ദിയോട് അനുബന്ധം ഹിന്ദിയും അതുപോലുള്ള അതുപോലുള്ള ഭാഷകളാണ് ദഷിണേന്ത്യ ഉത്തരേന്ത്യയിൽ ഉള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അരികൊണ്ടുള്ള ആഹാരമാണ് ദക്ഷിണേന്ത്യയിലെ കൂടുതലാൾക്കാരും ഉപയോഗിക്കുന്നത് ദക്ഷിണ ഉത്തരേന്ത്യയിലാണെങ്കിൽ അത് പരിപ്പ് ചപ്പാത്തി അങ്ങനെയുള്ള ഗോതമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യയിലുള്ളത് ഭാഷയുടെ വസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ ദക്ഷണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് വൈവിധ്യമാർന്ന കലാരൂപങ്ങളും മറ്റും ഉള്ള ഒരു നാടാണ് ദക്ഷിണേന്ത്യ കേരളത്തിലാണെങ്കിൽ പല പല ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എല്ലാം വളരെ അതാണ് വസ്ത്രധാരണത്തിൻ്റെ രീതിയിലാണെങ്കിൽ തന്നെ കേരള ദക്ഷിണേന്ത്യയിലെ വസ്ത്രം എന്നു പറയുന്നത് മുണ്ട് ഷർട്ട് ആണുങ്ങൾക്ക് സ്ത്രീകൾക്ക് സാരി ചുരിദാർ അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയിലാണെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ ഒരു ഉത്തരേന്ത്യയിലെ വാൻസ് ഒക്കെയാണ് കൂടുതൽ ധരിക്കുന്നത് സ്ത്രീകളാണെങ്കിലും ചുരിദാർ ഒക്കെയാണ് ധരിക്കുന്നത് അതു വളരെ സാരി ധരിക്കുന്ന കാര്യത്തിലും വളരെ രീതിയിലാണ് വസ്ത്രധാരണം അപ്പോൾ കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മിക്കവാറും തണുത്ത കാലാവസ്ഥയാണ് ദക്ഷിണേന്ത്യയിൽ മഴയുണ്ട് സമ്മിശ്ര കാലാവസ്ഥയാണ് വടക്കെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്നു പറയുന്നത് മിക്കവാറും ചൂടുള്ള പ്രദേശമാണ് ഒരു പരിധിവരെ കാലാവസ്ഥയിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരൂ നാടാണ് ഉത്തരേന്ത്യ കേരളം തമിഴ്നാട് കർണാടക അത് അതുപോലെയുള്ള സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിൽപ്പെടുന്നു ഭാഷയിലും വൈവിധ്യത്തിലും സംസ്കാരത്തിലും എല്ലാം വളരെ വ്യത്യസ്തമാണ് ജാതി വ്യവസ്ഥകൾ ആചാരങ്ങൾ സാക്ഷരത സാക്ഷരതയുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയാണ് ഒരു പരിധിവരെ മുമ്പിൽ നിൽക്കുന്നത് രാഷ്ട്രീയം ആണെങ്കിലും ദക്ഷിണേന്ത്യയിൽ പല പല രാഷ്ട്രീയ കക്ഷികളും ഉണ്ട് ഉത്തരേന്ത്യയിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിലും ചിലവർക്കാണ് മുൻഗണന കൂടുതലുള്ളത് ജീവിത സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ദക്ഷിണേന്ത്യയിലാണ് മനുഷ്യനു ജീവിക്കാവുന്ന ചുറ്റുപാടുകളുള്ളത് കാലാവസ്ഥയാണെങ്കിലും ഭാഷയാണെങ്കിലും വസ്ത്രമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നത് ദക്ഷിണേന്ത്യക്കാരാണ് ഉത്തരേന്ത്യയിലും കുഴപ്പമില്ല എല്ലാം വളരെ നല്ല രീതിയിൽ ഉത്തരേന്ത്യക്കാരും ജീവിക്കുന്നുണ്ട് അപ്പോൾ സാക്ഷരത കൂടിയ ഒരു സംസ്ഥാനമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ഒരു സംസ്ഥാനം എന്നു പറയുന്നത് കേരളമാണ് കേരളത്തിലെ വിവിധങ്ങളായ ജനങ്ങളുടെ പ്രശ്നങ്ങളും ജീവിത രീതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ ഒരു ദൈനംദിന ജീവിതത്തിൽ അവൻ ഭാഷയും ഭാഷയുടെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാലവസ്ഥയുടെ കാര്യത്തിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും സാക്ഷരതയുടെ കാര്യത്തിലും എല്ലാം വ്യത്യസ്തമാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ ദക്ഷിണേന്ത്യയിൽ മനുഷ്യൻ ഏത് കാലാവസ്ഥയിലും അവർ ജീവിക്കുന്നുണ്ട് അവരുടെ ആ സാക്ഷരത നിറം വളരെ നല്ല രീതിയിലുള്ള സാക്ഷരതയാണ് രാഷ്ട്രീയപരമായും മതപരമായും ജാതിയായും വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ആ ഒരു ദേശമാണ് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയിലാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആൾക്കാർ പരസ്പരം സഹകരിച്ചും സഹിച്ചും ജീവിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ ദക്ഷിണേന്ത്യയിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഒത്തിരി ജനങ്ങൾ അതിഥി തൊഴിലാളികളെന്ന പേരിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അവരെയെല്ലാം നമ്മൾ ദക്ഷിണേന്ത്യ ഒരു പരിധിവരെ അവരെയെല്ലാം നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ആദിത്യ ആദിതേയമരുളുന്നുണ്ട് അതിഥി തൊഴിലാളികൾ എന്നു തന്നെയാണ് അവരെ അറിയപ്പെടുന്നത് ഇതൊക്കെയാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള പ്രധാന സാംസ്കാരിക വ്യത്യാസങ്ങൾ